ഹലോ ഡോക്ടറല്ലേ ആ ഞാനാണ് സരസമ്മ എൻ്റെ കാലിന് നീരും വേദനയുമുണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഡോക്ടറെ വിളിച്ചത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഡോക്ടറെ കാണണമെന്ന് ഉണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണം ശരി ഞാൻ അങ്ങനെ ചെയ്യാം ഡോക്ടറെ അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ വന്ന് കാണാം